ജന്മദിനങ്ങളെക്കുറിച്ച് പറഞ്ഞാല് ജന്മദിനങ്ങള് ഇപ്പോള് പഴയ കാലങ്ങളെ വെച്ച് നോക്കിയാൽ ഇപ്പം വളരെയേറെ കാര്യക്ഷമമായി എല്ലാവരും ഇത് ആഘോഷിക്കുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാവരേയും അടുത്തുള്ളവരെയും ബന്ധുക്കളേയും ഒക്കെ അറിയിച്ച് അവരുവൊക്കെ വീട്ടിലെത്തി സന്ധ്യാ സമയത്തോ അതിന് വേണ്ടുന്ന നമുക്കുചിതമായൊര് സമയം തെരഞ്ഞെടുത്തുകൊണ്ട് ഒര് നേരത്തെ ഫുഡ്ഡും ക്രമീകരിച്ച് കേക്ക് മുറിക്കുകയും ചെറിയ ചെറിയ ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പിള്ളേരും മുതിര്ന്നവരും ഒക്കെയായിട്ട് ചെറിയ ചര്ച്ചകളും ഈ ആഘോഷത്തിന്റെ ഒരു സന്തോഷം പങ്കുവെച്ച് എല്ലാവരും ഓരോ സമ്മാനങ്ങളും ഈ ജന്മദിന ആഘോഷിക്കുന്ന വ്യക്തിക്ക് നല്കുകയും അതിലൂടെ അവര്ക്കൊരു സന്തോഷം ആ ദിവസം പ്രത്യേകമായി കൊടുക്കുകയും ചെയ്യാറുണ്ട് വീടുകളിലുള്ളവരെല്ലാരുമാ യിട്ട് ഒത്തൊരുമയോടുകൂടി അതിരുന്ന് സന്തോഷത്തോടുകൂടി ആ പരിപാടി നടത്താറുമുണ്ട് പിന്നെ വിവാഹം എന്ന് പറഞ്ഞാല് പഴയതിലും വളരെയേറെ വൈവിധ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വിവാഹം നടക്കുന്നത് ഇപ്പോള് വിവാഹത്തിനായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാല് നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാലും പെണ്ണുഞ്ചെറുക്കനുമായിട്ടൊന്നിച്ച് ഫോട്ടോസ്സെടുക്കാന് പോവുകയും നിശ്ചയത്തിന് നല്ല തരത്തിലുള്ള വസ്ത്രങ്ങള് ധരിക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും എല്ലാം കൂടുതല് പഴയ കാലത്തിനെ അപേക്ഷിച്ച് വളരെയേറെ കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുകയും ആഘോഷങ്ങളാണെങ്കില്ക്കൂടി തലേദിവസം മൈലാഞ്ചി ഇടീല് അല്ലെങ്കില് തലേദിവസം പുടവ കൊണ്ടക്കൊടുക്കലാണെങ്കിലും അങ്ങനെ ഒക്കെയുള്ള ചടങ്ങുകള് നടത്തുമ്പോള് അയല്വാസികളെ ഒക്കെയും കൂട്ട്കാരെയും മറ്റ് ബന്ധുജനങ്ങളേയും വിളിച്ചുകൊണ്ട് ആര്ഭാടമായിട്ട് തന്നെ ഈ പ്രോഗ്രാമുകള് നടത്തുകയും വിവാഹദിവസം അതിലും ഗംഭീരമായ രീതിയില് എല്ലാ കാര്യങ്ങളും നടത്തി വിവാഹം കഴിയുമ്പോള് വീണ്ടും ഫോട്ടോഷൂട്ടും മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബ്രൈട്സ്സ്കള് പോവുകയും ചെയ്യുന്നു ഇതും എല്ലാം മനുഷ്യര്ക്കും വളരെയേറെ സന്തോഷം തരികെയും അതോടൊപ്പം ഒരു ഉത്സവം പോലെ ആക്കി തീരുവാനും ഈ കാലഘട്ടം മനുഷ്യരെ ഒരുക്കിയിട്ടുണ്ട് ചെലവുകള് കൂടുകയാണെങ്കില്ക്കൂടിയും എല്ലാവരും ഇത് വളരെയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിന് അതിൽ കൂടുതല് വരുമാനം കണ്ടെത്തുവാനും മനുഷ്യര് പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്